ജോസഫേട്ടാ നമ്മൾ ആ പുതിയതായിട്ട് പണിതത് തോപ്രാംകുടിയിൽ പുതിയതായിട്ട് പണിതേക്കുന്ന ക്ഷേത്രത്തിന് അപ്പുറത്ത് ഒരു അഞ്ച് സെൻറ്റ് ഒരു ഫ്ലാറ്റ് പോലെ ചെറിയൊരു വീട് ഇല്ലേ അത് നമ്മൾ പറഞ്ഞില്ലേ അത് എന്ത് റേറ്റ് ആകും ഒരു ശകലം കൂടെ കുറയ്ക്കാൻ വല്ല മാർഗ്ഗം കാണുമോ ഇതെന്ന് പറയുമ്പോൾ ഒരു ഒരു രൂപയേലും മാറുമോ നമുക്ക് ഇചിരിയും കൂടെ അങ്ങോട്ട് ഒന്ന് മാറി നോക്കിയാലോ സെൻറ്റിന് എന്നാ വിലയാകും അപ്പം വീട് കാണുമോ അതിൻ്റെ അകത്ത് ആ ചെറിയ വീടുപോലെ ഉള്ളതാണ് നമ്മളുടെ ഉദ്ദേശം കുറച്ച് അത്യാവശ്യ സൗകര്യവും വേണം വെള്ളം വേണം ബോർവെല്ലടിക്കേണ്ടി വരും അയ്യോ അതിനപ്പം സൗകര്യം കുറയുവായിരിക്കും അല്ലേ ടാറിങ്ങാണോ അപ്പം അത് എന്തോരം സ്ഥലമാണ് അത് എന്തോരം സ്ഥലമാണ് സ്ഥലം എന്തോരം വരും ഇരുപത് സെന്റ് ഉണ്ടാകും അല്ലേ വീട് ഉണ്ട് അതിന് ഇരുപത് സെൻറ്റും വീടും കൂടെ കൂട്ടി എത്രയാണ് അവർ പറയുന്നത് ഇരുപത് സെൻറ്റിനാണോ അതായത് പള്ളി പള്ളിക്കൂടം ടൗണൊക്കെ കിട്ടുമോ ഒരു ഇരുപത് അയ്യോ അത്രയും പോകുമ്പോൾ ഇത്രയും വില എങ്ങനെയാണ് ഏട്ടാ അത് ഇച്ചിരി കൂടുതൽ അല്ലേ അതെങ്ങനെയാണ് കോൺക്രീറ്റാണത് വീട് അതെയോ ഷീറ്റ് അല്ല ചേട്ടാ ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് വീട് കോൺക്രീറ്റാണോ അതോ ഷീറ്റാണോന്നാ വാർക്കയാണോ അതെയോ അത് കോൺക്രീറ്റ് അയ്യോ അത് എന്താ ആ ഷീറ്റിട്ടതാണ് അല്ലെ അപ്പോൾ

ജാതി ഒന്നുമില്ലേ സ്ഥലത്തിൽ ജാതി തെങ്ങ് അങ്ങനെ ഒന്നും ഇല്ല

അതിന് ഉള്ള റേറ്റ് ഇല്ലല്ലോ അത്രയും റേറ്റ് ഏത് ഏതെങ്കിലും ഒരു ചെറിയൊരു വീടും ഒരു പത്ത് സെൻറ്റും കൂടെ ആയിട്ട് ഒരു ഒരു അഞ്ചാറു സെൻറ്റ് ഒരു പത്ത് പത്ത് രൂപയ്ക്ക് മേലെ ഉള്ളത് പറ്റുമോ മ്മ് നമ്മുടെ കയ്യിൽ ആകെ കൂടി പോയാൽ ഒരു പത്ത് പന്ത്രണ്ടേ എടുക്കാൻ ഉള്ളു അത്യാവശ്യം സൗകര്യങ്ങളും വേണം ആ

ആ

അഞ്ചാറ് സെൻറ്റ് കാണുകയുള്ളൂ അല്ലേ ആ നമുക്ക് ഏതാണ്ട് പള്ളി പള്ളിക്കൂടം അങ്ങനെ ഒക്കെ എത്ര കിലോമീറ്റർ വീതം പറ്റും ആ എന്നാൽ നമുക്ക് ചേട്ടാ നമുക്ക് അടുത്ത ദിവസം ഞാൻ ഉണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നമുക്കൊന്നു കണ്ടിട്ട് ഏകദേശം ഡീൽ ഉറപ്പിച്ചാലോ ഓക്കെ നമുക്ക് അടുത്ത ദിവസം ഇന്ന് പതിനൊന്ന് പന്ത്രണ്ട് ആയി തീയതി മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഒന്ന് പോയി കണ്ടേക്കാം എനിക്ക് അന്നേ സമയം ഒക്കുകയുള്ളു ഓക്കെ വിളിച്ചേക്കാം ഇടയ്ക്ക് ഒന്ന് ഓക്കെ